ഞാൻ കൂട്തലായിട്ടും പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നത് കാറാണ് പിന്നേ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോയത് എന്താണ് ബെസ്സിലായിരുന്നു അതൊക്കെ നല്ലൊരു അനുഭവം തന്നിട്ടുണ്ട് പിന്നേ എന്താണ് വിനോദങ്ങൾക്കായിട്ട് ഒക്കെ എനിക്ക് സഞ്ചരിക്കാൻ ഇഷ്ടമുള്ളത് ഇരുചക്ര വാഹനങ്ങളാണ് കാരണം അതില് നല്ല കാറ്റും ഒക്കെ കിട്ടും അപ്പം നല്ല രസമാണ് പിന്നെ വീട് തന്നെ റോഡിൻ്റെ അടുത്തായത് കൊണ്ട് കുറേ പല തരം വാഹനങ്ങളൊക്കെ കാണാൻ കൈഴിയാറുണ്ട് പിന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോകുന്നതൊക്കെ പോകുന്ന വണ്ടികളൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കാരണം അത് കാണുമ്പോൾ നമ്മൾ ഓടി പോയതൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട് പിന്നെ എങ്ങനെ ഐസും കൊണ്ട് വരുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും ബെല്ലടിച്ച് വരുമ്പം എന്താണ് പണ്ടത്തെ ഒക്കെ എനിക്ക് ഓർമ്മ വരും ഉമ്മ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങുന്നതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മയുണ്ടാവാറുണ്ട് പിന്നേ അതുപോലെ തന്നെ കുറേ കുട്ടികളൊക്കെ ഓടി വരും അതു വാങ്ങാനായിട്ട് അത് കാണുമ്പോൾ ഒരു രസമാണ് പിന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടം വിമാനത്തിൽ പോവാനാണ് ഭാവിയിൽ വിമാനത്തിലും തീവണ്ടിയിലും അതുപോലെ തന്നെ കപ്പലിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിമാനത്താവളത്തിൽ കയറാനാണ് അതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്